ഞാൻ ലാസ്റ്റ് ആയിട്ട് മൈസൂര് ഒരു വെയർ ഹൗസിൽ ജോലി ചെയ്തിരുന്നു അപ്പം ഞാൻ അവിടുത്തെ സ്റ്റോറിന്റെ ഇൻചാർജ് ആയിട്ടായിരുന്നു അവിടെ കുറേ പണിക്കാർ ഉണ്ട് എല്ലാം ഹിന്ദിക്കാരായിരുന്നു അതിൽ ഒരു രോഹിത് എന്ന് പറഞ്ഞ ഒരു ചെക്കനുണ്ട് എന്നേക്കാട്ടിലും ഇളയ ചെക്കനാണ് ഒരു പത്ത് ഇരുപത് വയസ്സേ ഉണ്ടാവുകയുള്ളൂ അവനുമായിട്ട് ഒത്തുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേത് ദേഷ്യമാണ് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ വിചാരം ഇവനെ നമ്മൾ കഷ്ടപ്പെട്ട് ഇവനെ മാത്രം പണിയെടുപ്പിക്കുകയാണ് ഇവനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഇവനു മാത്രം ജോലി കൊടുക്കുക എന്ന് ഒക്കെ ഇവന് വിചാരിക്കുമായിരുന്നു അപ്പോൾ ഇവനോട് ഒന്നും പ്രത്യേകിച്ച് ഒന്നും പറയാന് പറ്റില്ല എല്ലാം ഒരു മയത്തില് പറയണം ജോലി ചെയ്യടാ എന്ന് ഉച്ചത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് ദേഷ്യമാകും പിന്നെ ഇവന് മര്യാദയ്ക്ക് ചെയ്യില്ല പക്ഷെ നല്ലൊരു നല്ല വണ്ണം നല്ലപോലെ മനസ്സിലാക്കാനും ബുദ്ധിയും നല്ല ജോലിയും കഴിവുള്ള ചെക്കനും കൂടി ആയതുകൊണ്ട് നമുക്കങ്ങനെ